എൻ്റെ മാതൃഭാഷ മലയാളം മലയാളം പഠിക്കുവാനും വായിക്കുവാനും എഴുതുവാനും എളുപ്പമല്ലാത്ത ഭാഷയാണ് അത് വായിൽ വഴങ്ങണമെങ്കിൽ പ്രത്യേകമായ കഴിവ് തന്നെ വേണം ആ കഴിവ് മലയാളികളുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് എന്നാൽ ചില വിദേശികൾ നമ്മുടെ മാതൃഭാഷകൾ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അഭിമാനം തോന്നും കാര്യം അവർ കൃത്യമായി നാക്കുകൾ വഴക്കി കൃത്യമായ ഭാഷാശുദ്ധിയോടു കൂടി സംസാരിക്കുന്നത് എത്ര ഭംഗിയോടെ കട്ടി കേട്ടിരിക്കാൻ നമുക്ക് തോന്നാറുണ്ട് അതുകൊണ്ടു തന്നെ മലയാളം ഒരു വികാരമാണ് മലയാളത്തിൽ ഒരുപാട് വാർത്താചാനലുകളുണ്ട് ഏഷ്യാനെറ്റ് ട്വൻ്റി ഫോർ മാതൃഭൂമി ന്യൂസ് റിപ്പോർട്ടർ പിന്നെ ധാരാളം യൂട്യൂബ് ചാനൽസും അവ വാർത്തകൾ ജനത്തിനായി കൊണ്ടുവന്നു കൊണ്ടേ ഇരിക്കുന്നു മാധ്യമ സ്വാതന്ത്ര്യം ഏറ്റവും കൂടുതൽ ഉള്ളത് മലയാളം ചാനലുകൾക്കാണ് മലയാളം റിപ്പോർട്ടിംഗ് വളരെ ഹൃദ്യവും സുഖകരവുമാണ് അതിൻ്റെ വ്യത്യസ്തതകൊണ്ടും അതിൻ്റെ റിപ്പോർട്ടിംഗ് അവതരണ രീതികൾ കൊണ്ടും മലയാളം ചാനൽ വ്യത്യസ്തമാവുന്നു കാരണം ഓരോ വ്യക്തിയുടെയും പ്രശ്നങ്ങളിൽ മലയാളം ചാനൽ ഇടപെടുന്നു അവരുടെ വ്യക്തിപരമായ തീരുമാനങ്ങളും മറ്റും എടുക്കുന്നതിനും അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും എല്ലാം മലയാളം ചാനൽ ഇടപെടുന്നു വിദേശത്ത് ഒരു ആൾ ജയിലിൽ ആയിരുന്നപ്പോൾ കോടികൾ സമ്പാദിക്കുവാനും കോടികൾ അവൻ്റെ മോചനദ്രവ്യമായി ചോദിച്ചപ്പോൾ അത് നേടിയെടുത്തു കൊടുക്കുവാനും പിന്നെ ലക്ഷങ്ങൾ വരുന്ന മരുന്നുകൾ നിമിഷനേരം കൊണ്ട് പണം കണ്ടെത്തി അതിൻ്റെ മരുന്നിൻ്റെ ലഭ്യത നേടി കൊടുക്കുവാനും എല്ലാം മലയാളം ചാനൽ നല്ല മുൻകൈ എടുത്തിട്ടുണ്ട് വിദേശത്ത് നിന്നും എവിടെ ഏതു കോണിലും ഒരു മലയാളിയുണ്ട് അതാണ് മലയാളത്തിൻ്റെ പ്രത്യേകത ഏതു കോണിലും ലോകത്തിൻ്റെ ഏത് നാനാ കോണിലും ഒരു മലയാളിയുടെ അവൈലബിലിറ്റി ഉണ്ട് അതുകൊണ്ട് തന്നെ മലയാളം ഏറ്റവും മഹത്തായ ഭാഷയാണ് അതിലെ വാർത്ത അവതരണവും ചടുലതയാർന്ന ഭാഷാപ്രയോഗവും പിന്നെ ഇതിൻ്റെ മിത്തും എല്ലാം തന്നെ സൗന്ദര്യമാർന്നതാണ് മലയാളത്തിൽ വാർത്ത കേൾക്കുന്നത് നല്ല ഒരു പാട്ട് കേൾക്കുന്നതിന് തുല്യമാണ് ആ പാട്ട് എത്രത്തോളം നീണ്ടുനിൽക്കുന്നുവോ അത്രത്തോളം മനോഹാരിതയും ഇതിന് അകത്ത് ഉണ്ടാകാറുണ്ട് എല്ലാവരുടെയും സ്വാന്ത്വനവും സ്പർശനവും ആണ് മലയാളം ചാനൽ